പശുവിനെയും മൃഗങ്ങളേയുമൊക്കെ ഇപ്പം വളർത്തുകയാണെങ്കിൽ ഇപ്പം അത് ഭയങ്കര ടാസ്ക്ക് ആയിട്ട് തന്നെയാണ് അതിരിക്കുന്നത് കാരണം നമ്മൾ എന്ത് വില കൊടുത്താണാ പശുക്കളെയൊക്കെ നമ്മൾ മേടിക്കുന്നത് പക്ഷെ നമ്മൾ പശുക്കളെ വളർത്തി അത്ങ്ങൾക്കുള്ള തീറ്റയും പുല്ലും അതനുസരിച്ചുള്ള ആഹാരങ്ങൾ കൊടുത്തതുപോലുള്ള വരുമാനം നമുക്ക് ഇപ്പം കിട്ടുന്നില്ല നമ്മൾ ഇപ്പം സൊസൈറ്റികളിൽ ആണെങ്കിലും പാൽ കൊണ്ട് കൊടുത്താൽ ഇപ്പം തീറ്റയ്ക്കൊക്കെ ഭയങ്കര പശുവിനുള്ള തീറ്റകൾക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പം അതനുസരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അതുപോലുള്ള പാലും നമുക്ക് കിട്ടുന്നില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ പൊന്ന് പോലെ തന്നെയാ നോക്കുന്നത് പിന്നെ നമ്മളൊരു പശുവിനെ വളർത്തുകയാണെങ്കിൽപ്പോലും നമുക്ക് ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾക്ക് രണ്ട് പശു രണ്ട് മൂന്ന് പശുക്കിടാവൊക്കെ ഉണ്ട് നമ്മൾ അതിനുള്ള നമ്മൾ നോക്കുന്നതിനനുസരിച്ചുള്ള വരുമാനം ഒന്നും അത് ഞങ്ങൾക്ക് തരുന്നില്ല എങ്കിൽപ്പോലും ഞങ്ങൾ ഞങ്ങളെ മക്കളെ സ്നേഹിക്കുന്ന പോലെത്തന്നെ നമ്മളാ മൃഗങ്ങളെ സ്നേഹിക്കുകയാണ് നമ്മളത് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഹസ്ബെൻന്റെ ഫാമിലിയിലുള്ള ആൾക്കാരുണ്ട് അവർ വന്നാണീ പശുവിനെ കുളിപ്പിക്കുകയും അവർക്ക് സമയത്ത് വെള്ളം വെള്ളം കൊടുക്കുകയും അതിനുള്ള തീറ്റയൊക്കെ കൊടുക്കുന്നത് അവർ തന്നെയാണ് പിന്നെ നമുക്ക് അതിന്റെതായ എന്തെങ്കിലും ഇത് ആദായമൊന്നും മോഹിച്ചിട്ടൊന്നും അല്ല ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ ഒരു കന്നുകാലികളെ വളർത്തിയാലും അതിനുള്ള ആനുകൂല്യങ്ങളൊന്നും നമുക്ക് തരത്തില്ല ഗെവൺമെന്റ് അങ്ങനെ പല ആനുകൂല്യങ്ങളും തരാം എന്നൊക്കെ പറയും പക്ഷെ നമുക്കൊന്നും കിട്ടില്ല ഞങ്ങൾക്കൊരു അനുഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളിതുപോലെ ഒരു പോത്തിനെ മേടിച്ചിട്ട് ആ പോത്തിനെ കൊണ്ട് വന്ന് രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച്ചയേ ആയിട്ടുള്ളൂ അപ്പം അത് അന്നേരം അതിനെ എന്തോ പാമ്പ് കടിച്ച് അത് അങ്ങ് ചത്ത് അതിൻ്റെ ഇൻഷുറൻസോ അങ്ങനെയൊരു തുകകളോ ഒന്നും ഞങ്ങൾ ഇൻഷൂറ് ഞങ്ങൾക്ക് അതിന്റെതായതൊന്നും ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല അത്കൊണ്ട് ഇപ്പോഴുള്ള ഈ ഞങ്ങൾ കർഷകരായ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കന്നുകാലിയൊക്കെ വളർത്തി അവരെ മേയ്ച്ചുകൊണ്ട് പോവാൻ കാരണം നമ്മുടെ വരുമാനവും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും പല പല സാമ്പത്തികത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുമ്പോൾ അപ്പോൾ ഇവർക്കുള്ള കാര്യങ്ങളുംകൂടെ മേടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും ഞങ്ങൾ അത്ങ്ങളെ വളർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആദായമൊന്നും ഇല്ല പിന്നെ ഇച്ചിരി പാൽ കിട്ടിയാലും അത് പുറത്തുനിന്ന് മേടിക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽത്തന്നെ ഉപയോഗിക്കാലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങളതിനെ ഇപ്പോൾ വളർത്തിക്കൊണ്ട് പോകുന്നത് നല്ല രീതിയിൽ അതിനെ വൃത്തിയായിട്ട് നമ്മൾ സൂഷിക്കുന്നുണ്ട് അതിന് സമയാസമയങ്ങളിൽ ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല മനോഹരമായ രീതിയിൽത്തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ കോഴിത്തീറ്റയും പശുവിനുള്ള തീറ്റയൊക്കെ അതിനൊക്കെ ഭയങ്കര കപ്പലണ്ടിപ്പിണ്ണാക്ക് അങ്ങനെയുള്ളതിനൊക്കെ ഭയങ്കര വിലയാണ് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഒരു സാധനത്തിനും ഇല്ല വിലയില്ലാത്തെ എല്ലാ സാധനത്തിനും വിലയാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത്ങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നാലും അത്ങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ആദായവും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് പോലെത്തന്നെ പശു വിന് സമയത്തുള്ള ആഹാരങ്ങൾ കൊടുക്കുക അത്ങ്ങൾക്ക് കൃത്യനിഷ്ട്ടയായിട്ട് ഉള്ള എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ ഞങ്ങൾ വളർത്തുക അതിന് ഞങ്ങൾക്കൊത്തിരി പരിമിതികളുണ്ട് എന്നാലും ഞങ്ങൾ ആ മൃഗങ്ങളെ നല്ല നമ്മുടെ മക്കളെപ്പോലെ തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞങ്ങൾക്ക് പിന്നെ അത്ങ്ങളിൽനിന്ന് എന്തെങ്കിലും പാലോ അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുകയൊന്നും ഇല്ല പിന്നെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും അതിനെ നല്ല രീതിയിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അതിനെക്കൊണ്ട് ഞങ്ങൾ വളർത്തി പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതാണ് ഇപ്പഴും ഇത് പിന്നെ പുതിയ ഒന്നും ഉള്ള ഇതിനെ വളർത്തി വലുതാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം അതുപോലുള്ള സംരംഭങ്ങളാണ് ഞങ്ങൾക്ക്